ചിരട്ടയും മുളയും പോലെയുള്ള വസ്തുക്കളുടെ ലഭ്യത എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ദുർലഭമാണ് കാരണം ഇപ്പോഴത് നമുക്ക് സമ്പാദിക്കാന് സാധിക്കുന്നത് കടകളിലും മറ്റും നിന്ന് പണം കൊടുത്ത് വാങ്ങുന്നതിലൂടെയാണ് അതല്ലാതെ കൃഷി ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പോള് നശിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാര് ബിൽഡിങ് കെട്ടിപ്പൊക്കുകയും അതുപോലെ തന്നെ ഫ്ലാറ്റുകള് നിർമ്മിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ കൃഷികളെല്ലാം നഷ്ടമാകുകയാണ് ചെയ്തിട്ടുള്ളത് തെങ്ങാണെങ്കിലും മുളയാണെങ്കിലും ഇപ്പോള് നമ്മുടെ നാട്ടില് തീരെ ദുർലഭമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോള് പുറമെ നിന്ന് കടകളിൽ നിന്ന് അതുമൂലം ഉണ്ടാക്കിയ വസ്തുക്കള് വാങ്ങിക്കുകയെന്നല്ലാതെ നമുക്കൊരിക്കലും ഇത് ഇപ്പോള് പുറമെ നിന്ന് കിട്ടാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലഭ്യത എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ദുർലഭം തന്നെയാണ്